ഇത് ഐ ഹോസ്പിറ്റലല്ലേ ആ അമ്മയാണ് എൻ്റെ അച്ഛനിങ്ങനെ കാണാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പമൊരു ഐ ഓപ്പറേഷൻ ചെയ്യാനായിരുന്നു എപ്പോഴ്ത്തേക്ക് വരണമെന്ന് പറയാൻ ആ അൻപത്തെട്ട് വയസ്സാണ്

ആ ഷുഗറുണ്ടായിരുന്നു ഇല്ല ആ ഓക്കെ ഓക്കെ പിന്നെ ഓപ്പറേഷനൊക്കെ എത്ര ദിവസം എടുക്കും നമ്മൾ എത്ര ദിവസം നിൽക്കെണ്ടത് ആ ആ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കുളിക്കുന്നതോ അതിനൊക്കെ വല്ല പ്രശ്നമുണ്ടോ ഓ ഓക്കെ ഓക്കെ പിന്നെ ഇത് ചെയ്തതോണ്ട് വല്ല അലർജി അതിന് വല്ല സാധ്യതയുണ്ടാവോ പിന്നീട് ആ മാം പിന്നെ ഈ ഓപ്പറേഷന് എത്രയാകും ചിലവാകും ആ ഓക്കെ അപ്പോൾ ഈ അടുത്ത് വരുന്ന ദിവസം തന്നെ ആ വന്നാലവിടെ ഹോസ്പിറ്റൽ ഇതുണ്ടാവും സൗകര്യം ഉണ്ടാവായിരിക്കില്ലേ ആ ഓക്കെ മാം ആ ഞാനപ്പോൾ തിങ്കളാഴ്ച തന്നെ വരാം